ഞാനാദ്യമായിട്ട് ഫോട്ടോ എടുത്തത് എൻ്റെ ഫോട്ടോ തന്നെ ആയിരുന്നു അത് എന്റെ ഒരു സുഹൃത്തിൻറെ ഇവിടടുത്തുള്ള എൻറെ വീടിന് സുഹൃത്തിൻറെ ഫോ ക്യാമറയിലാണ് ആദ്യമായിട്ട് ഫോട്ടോ എടുക്കുന്നത് ഡി എസ് എല് ആർ ക്യാമറേലാണ് ആദ്യമായിട്ട് ഫോട്ടോ എടുത്തത് അത് ഞാനെൻ്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് ഞാനാദ്യമായിട്ട് ഫോട്ടോ എടുക്കുന്നത് അപ്പം അത് ഞാൻ എനിക്ക് എൻ്റെയൊരു ആഗ്രഹത്തിൻറെ പുറത്താണ് അങ്ങനെ ക്യാമറയിലെനിക്കൊരു ഫോട്ടോ എൻറെ തന്നെ ഒരു ഫോട്ടോ വേണമെന്നുള്ളത് എൻറെ ആഗ്രഹം ഞാൻ ഫോണിലങ്ങനെ അധികം ഫോട്ടോ എടുക്കാത്തൊരാളാണ് ഞാൻ അങ്ങനെ ഫോണിൽ ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റ അങ്ങനെ ഇടുക അങ്ങനത്തെ ഒരു രീതിയൊന്നും ഇല്ല അപ്പോൾ ഞാൻ എങ്കിൽ എന്റെ ഫോട്ടോ തന്നെ എനിക്കെടുക്കണമെന്നുള്ളതു കൊണ്ട് ഞാനൊരു ക്യാമറെ തന്നെ എടുക്കണമെന്ന് നിർബന്ധം ഉള്ളതുകൊണ്ടും ഞാൻ അത് എൻറെ സുഹൃത്തിന്റെ ക്യാമറ ഉണ്ടെന്നു പറഞ്ഞു അപ്പോൾ അവിടെ വന്നാൽ മതി എടുത്തുതരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനാദ്യമായിട്ട് അവിടെ പോയി ക്യാമറ ഒരു ഫോട്ടോ എടുത്തു അന്ന് മോശമായിരുന്നു എന്നാലും കുഴപ്പം ഇല്ല ക്യാമറ എടുത്തതുകൊണ്ട് ഞാൻ എന്റെ പതിനെട്ടാം വയസ്സിൽ ഞാനാദ്യമായിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്